എനിക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ സംരംഭങ്ങളിൽ ഒന്നാണ് കുടിൽ വ്യവസായം എന്നു പറയുന്നത് ഇതുവഴി ജനങ്ങൾ വളരെ അധികം സന്തുഷ്ടരുമാണ് എന്നാൽ വലിയ വരുമാനം പ്രതീക്ഷിച്ചു കൊണൊന്നുമല്ല കൊണ്ടല്ല ഇവർ ഇത് നടത്തപ്പെടുന്നത് എന്നാൽ അവരുടേതായ ആഗ്രഹപ്രകാരം അവർ ഒരു ബിസിനസ്സ് തുടങ്ങുകയും അതിൽ ചെറിയ നിക്ഷേപം വഴി അതിനൊത്ത വരുമാനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിട്ടാണ് ഈ വ്യവസായങ്ങൾ തുടങ്ങുന്നത് ഇവ മൂലം അവരുടെ വളർച്ചയ്ക്കും അവരുടെ കൂടെയുള്ളവരുടെ വളർച്ചയ്ക്കും ഇത് വളരെ പ്രയോജനപ്പെടുന്നു ഇതിനായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി ലോൺ കണ്ണുകളും അതുപോലെ തന്നെ സഹായങ്ങളും ലഭ്യമാക്കപ്പെടുന്നുണ്ട് ഇതിൽ ഒരു ഒരു വിഹിതം മാത്രമാണ് സംരംഭകരിലേക്ക് എത്തുന്നത് എന്നാൽ ബാക്കിയുള്ളവ പലതും മുകളിൽ മേലെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വഴി ഇവ അവരിൽ നിന്നും അതെല്ലാം പിടിച്ചെടുക്കപ്പെടുന്നു ഇതിനാൽ തന്നെ ജനങ്ങൾക്ക് അവരുടേ മേലെയുള്ള വിശ്വാസവും മറ്റും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയും നിരവധി പേർ മുമ്പോട്ട് പോരുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള യാതൊരുവിധ സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു ബിസിനസ്സ് ചെയ്യുന്ന ഒരാൾ മറ്റൊരു ബിസിനസ്സ് ചെയ്യുന്ന വേറെ ഒരാളുമായി സംഘടിച്ചു ഇരുവരുടെയും ബിസിനസ്സ് മുമ്പോട്ടു കൊണ്ടു പോവുക എന്ന ഒരു എന്നൊരു സംരംഭക തത്വമല്ല ആ ചെയ്യുന്നത് എന്നാൽ കൂടെയുള്ളവൻ്റെ തകർച്ചയാണ് പ്രധാനമായിട്ടും മറ്റൊരു സംരംഭകൻ കാണുന്നത് അവനെ തരം താഴ്ത്തി എങ്ങനെ മുകളിലെ തട്ടിലേക്ക് പോകാം എന്നു മനക്കോട്ട കാണുന്ന നിരവധി സംരംഭകരാണ് ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്നത് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കപ്പെടുകയും എന്നാൽ അതിൽ പലതും തട്ടിയെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം സംരംഭകത്വ നിയമമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്